പുതിയ പ്രവണതകളെ കുറിച്ചറിയാനായി ഏതൊക്കെ തരത്തിലുള്ള പ്രദർശനങ്ങൾ അല്ലെങ്കിൽ സന്ദർശിക്കാറ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ വച്ചൊരു ചിത്രപ്രദർശനം നടക്കുക ഉണ്ടായി അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു അത് ചില പ്രദശനങ്ങൾ ഞാൻ സന്ദർശിക്കയും അവിടെ വച്ച് ഞാൻ പല പല ഉള്ള അതായത് അന്നത്തെ സാമൂഹിക പ്രശ്നങ്ങൾ വരച്ചു കാണിക്കുന്ന നിരവധി ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി ഓരോന്നും എൻ്റെ മനസ്സിനെ സ്പർശിച്ച് ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കുട്ടി ഇങ്ങനെ തെരുവിൽ നിന്നും നിലത്തുനിന്ന് ആഹാരം എടുത്ത് കഴിക്കുന്നത് ആയിട്ടുള്ളൊരു ഫോട്ടോ എൻ്റെ മനസ്സിനെ വളരെ വല്ലാത്ത രീതിയിൽ സ്പർശിക്കുകയുണ്ടായി അപ്പോൾ അതിൽനിന്നും നമുക്ക് അതിനകത്തൊരു കാണാൻ സാധിക്കുന്നത് സമൂഹത്തിൽ ആഹാരം ലഭിക്കാതെ അലയുന്ന ഒരുപാട് കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ മാനസികവിഭ്രാന്തി ഉള്ളവരേയും പോലെ ഉള്ള പല സമൂഹത്തിൽ അന്ന് അപ്പോഴും അലയുന്നു എന്ന് ഉള്ളൊരു തിരിച്ചറിവാണ് നമുക്കത് ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുക മനസ്സിലാക്കാൻ സാധിച്ചത് അതേസമയം ഒരു വശത്ത് സമൂഹത്ത് വളരെ ആർഭാടത്തോടുകൂടി ജീവിച്ച് ജീവിക്കും ജീവിച്ചു വരുന്ന ചിലവഴിച്ച് വരുന്ന ഒരു സമൂഹം ആഹാരങ്ങളെയൊക്കെ ഒരു മാര്യേജ് ഫംഗ്ഷനാണെങ്കിലും കൊള്ളാം ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും വളരെ ആർഭാടത്തോട് കൂടി ചിലവാക്കുകയും വെറുതെ നശിപ്പിച്ച് കളയുകയും അത് മിച്ചം വരുത്തി വേസ്റ്റ് ആക്കിയൊക്കെ വളരെ ആവശ്യത്തിൽ കൂടുതൽ ആഹാരമെടുത്ത് പ്ലേറ്റിലെടുത്ത് കഴിച്ചു തുടങ്ങിയ ശേഷം പകുതിയിൽ കൂടുതൽ കുറച്ച് മാത്രം കഴിച്ചുകൊണ്ട് ബാക്കി നശിപ്പിച്ച് കളയുന്ന ഒരു സമൂഹം ഒരു വശത്ത് മറുവശത്ത് ആഹാരം ലഭിക്കാൻ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പല ഇപ്പോൾ സാമ്പത്തിക പരാധീനതയാകാം അല്ലെങ്കിൽ പല തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളുടെ പുറത്തായിരിക്കാം ആഹാരം ലഭിക്കാതെ ഉള്ള മറ്റൊരു സമൂഹം അത് വരച്ചു കാണിക്കുന്നൊരു ചിത്രമായിരുന്നു അത് അതുപോലെ എന്നെ പിന്നിട് വേറൊരു ചിത്രം എനിക്ക് കാണാൻ ഞാൻ കാണാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ വരച്ച് കാണിക്കുന്ന ഒരു ചിത്രം കാണുകയുണ്ടായി പിന്നെ ഈ ഉരുൾ പൊട്ടൽ പോലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചെന്നത് ഉരുൾപൊട്ടലിൻ്റെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ചിത്രമായിരുന്നു ഒരു കുടുംബം മുഴുവൻ ഒരു കുഞ്ഞിനെ മാത്രം ബാക്കിയാക്കികൊണ്ട് ആ കുടുംബത്തിലെ മറ്റെല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു ചിത്രം അതിൻ്റെ എൻ്റെ മനസ്സിനെ വളരെ പിടിച്ചു കുലുക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങളാണ് ഞാനെൻ്റെ ചിത്രശാല അന്നത്തെ സന്ദർശനത്തിൽ എൻ്റെ മനസ്സിലിപ്പോഴും ഓർത്ത് ഓർമ്മയിൽ നിൽക്കുന്നത്